ആ വരു ഇരിക്കൂ എന്താ പേര് ആണല്ലെ എവിടെ നിന്നാണ് വരുന്നത് സ്ഥലം എവിടെയാണ് ആ ആ പാലക്കാട് തന്നെ ആണ് ഒക്കെ ഇപ്പോൾ നിലവിൽ എന്താണ് ഒന്ന് ബ്രീഫ് ആയിട്ട് ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പറ്റുമോ എന്താണ് എവിടെ നിന്നാണ് വരുന്നത് എന്നൊക്കെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ആ ഒക്കെ ആ ഡിഗ്രീ എവിടെ പഠിച്ചത് ഡിഗ്രീ എവിടെയാണ് ചെയ്തിട്ടുണ്ടായത് എ ജെ ക്കേ കോളേജ് ആയിരുന്നു ഒക്കെ യൂണിവേഴ്സിറ്റി ഏതാണ് അപ്പോൾ അണ്ണാമല ആണ് ഒക്കെ ഓ ബികോം ആയിരുന്നു അല്ലേ ആ അവിടെ തന്നെ ആണല്ലെ ഒക്കെ പിന്നെ ഡിഗ്രീക്ക് എത്ര പെർസൻ്റെജ് മാർക്ക് ഉണ്ടായിരുന്നു എഴുപത്തി അഞ്ച് ശതമാനം അല്ലെ ഒക്കെ ഓ അപ്പോൾ കുഴപ്പമില്ല ആ ബി കോമിന് എം കോമിനൊ ഓഹ് കുഴപ്പമില്ല ഏത് ഇയറിലാ പാസ് ഔട്ട് ആയത് പതിനാറ് അല്ലേ ഒക്കെ ഇതിന് മുൻമ്പ് എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടോ അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നോ അക്കൌൻഡ്സില് ഓഹ് എത്ര മ് മാസമോ എത്ര മന്ത് ആയിരുന്നു അതോ ഇനി ഇയർ ആയിരുന്നു വർക്ക് ചെയ്തത് ബാംഗ്ലൂര് പോയി അല്ലേ ഓഹ് അപ്പോൾ അവിടെ ഓഹ് അവിടെയും അക്കൌണ്ട് സെക്ഷനിൽ തന്നെ ആയിരുന്നോ വർക്ക് ചെയ്തത് ഓഹ് ഓഹ് അപ്പോൾ ആ ഇപ്പോൾ അവിടെ നിന്ന് വർക്ക് ചെയുവാണോ അതോ അവിടെ കൊട്ടേഴ്സ് നിന്ന് വർക്ക് ചെയുവാണോ ആണല്ലെ ഓക്കെ ഓക്കെ നമുക്ക് ഇവിടെ മൊത്തം അക്കൌണ്ട് സെക്ഷൻ തന്നെ ആണ് ഇവിടെ വർക്കിങ് വരുന്നത് മൊത്തം അക്കൌണ്ട് സെക്ഷനിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി നടത്തുക പിന്നെ നിങ്ങളുടെ താഴെ തന്നെ കുറച്ച് പേര് രണ്ടു മൂന്ന് സ്റ്റാഫ് ഉണ്ടാവും അപ്പോൾ അവരുടെ കാര്യങ്ങൾ ഒക്കെ അവരുടെ ആ ഇതും മൊത്തം കാൽക്കുലേറ്ററിൽ ഒന്ന് ടാലീ ആക്കുക മൊത്തം വരവ് ആ അക്കൌണ്ട്സിൻ്റെ പൈസയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക എന്തൊക്കെ ആണെന്ന് ക്ലിയർ ചെയ്യുക ഇത്രെയൊക്കെ ഉള്ളൂ ഇവിടെയും മെയിന് ആയിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ട് ഉള്ളതൊന്നും അല്ല പിന്നെ അവിടെ അവിടെ എന്തുകൊണ്ടാണ് നിർത്താൻ കാരണം സാലറി നമ്മൾ മുപ്പത് ആണ് ഇപ്പോൾ ഫ്രഷ് കേറിയത് കൊണ്ട് പിന്നെ നിങ്ങൾ ആ സ്റ്റാർട്ടിങ് പിന്നെ എക്സ്പീരിയൻസ് ഒക്കെ ഉളളത് കൊണ്ട് ഒരു മുപ്പത് വരെ മാക്സിമം തരാം നമുക്ക് ഒക്കെ അപ്പോൾ അവിടെ എന്താ നിർത്താൻ കാരണം എന്തായിരുന്നു ആ ആ ഒക്കെ

ഒക്കെ അപ്പോൾ ഞാൻ എന്നാൽ എപ്പോഴാണ് ജോയിൻ ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് ഇതായിട്ട് വാട്ട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ വിളിക്കുകയും ചെയ്യാം ഒക്കെ ഒക്കെ ശരി ശരി